കപ്പയും മീനും ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായി തന്നെ നമ്മൾ കടയിൽപ്പോയി കപ്പ മേടിക്കണം കപ്പ മേടിച്ചു വന്നു കഴിഞ്ഞ് ഉടനെ നമ്മൾ കപ്പ തൊലി കളഞ്ഞ് നുറുക്കി കഴുകി അടുപ്പു കത്തിച്ച് തീ കത്തിച്ച് പാത്രത്തിൽ വെള്ളം വെച്ച് അതു വേവിക്കാൻ വേണ്ടിയിട്ടു വെയ്ക്കണം കപ്പ ആയിക്കഴിയുമ്പോൾ അതായത് വെന്തു കഴിയുമ്പോൾ വെള്ളത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന കപ്പ വെന്തു കഴിയുമ്പോൾ വെള്ളം ഊറ്റി അതിലേക്ക് തേങ്ങ ചുരണ്ടി അതിനകത്ത് സെ ചുരണ്ടിയ തേങ്ങയ്ക്കകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ മുളക് വെളുത്തുള്ളി ഉള്ളി എന്നിവ മിക്സിയിൽ ഒരു പ്രാവശ്യം കറക്കിയിട്ട് അത് ഊറ്റിക്കളഞ്ഞ വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പ നമ്മൾ അടുപ്പത്തു വെച്ച് ഈ മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങയും കൂടി അതിനുള്ളിയിട്ട് കുറച്ചുനേരം ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെയ്ക്കുക അടച്ചു വെയ്ക്കുക ഈ ആവി വഴി കപ്പയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തേങ്ങയും വെന്തിട്ടുണ്ടാകും ആ സമയത്ത് കപ്പ നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കുക ഇളക്കി എടുത്ത് അതോടൊപ്പം തന്നെ ഉപ്പ് വെള്ളത്തിനുള്ളിൽ ചേർക്കേണ്ടതാണ് വെൾ ഉപ്പ് ഇല്ലെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെയും കൂടി ഉപ്പ് ചേർത്ത് ഇളക്കി നമുക്ക് കപ്പ തയ്യാറാക്കുക തയ്യാ തയ്യാറാക്കാവുന്നതാണ് ഒപ്പം ഇതിനൊപ്പം നമുക്ക് കറിവേപ്പിലയും ആഡ് ചെയ്ത് കപ്പ ഇളയ്ക്കുന്ന ഇളക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇടാവുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ മീങ്കറി വെയ്ക്കേണ്ടത് മാർക്കറ്റിൽപ്പോയി ആവശ്യമായിട്ടുള്ള മീൻ കഴുകി മേടിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മുറിച്ച് കഴുകി പറ്റുമെങ്കിൽ വിനാഗിരിയിലും ഒക്കെയിട്ട് കഴുകി അത് ആവശ്യമായിട്ടുള്ള അളവിൽ മുറിച്ച് ചട്ടിക്കകത്ത് മീൻ ചട്ടിക്കകത്ത് വെയ്ക്കുക അതിനുമുമ്പ് നമ്മൾ അടുപ്പത്ത് അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടിക്കകത്ത് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂടെ ഉലുവയിട്ട് സവോള ഇട്ട് വഴറ്റി നന്നായിട്ടു വഴറ്റുക അതിനുശേഷം അതിനുള്ളിൽ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടു വഴറ്റേണ്ടതാണ് മുളകുപൊടി ഇടുന്നതുകൊണ്ട് പച്ചമുളക് ഇടേണ്ട നിർബന്ധമില്ല ആവശ്യമെങ്കിൽ പച്ചമുളകും കൂടി ഇടാവുന്നതാണ് അതു നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുടംപുളി അതായത് കുടംപുളി നേരത്തെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ടു വെക്കണം ആദ്യമൊന്ന് കുടംപുളി കഴുകണം അതിനുശേഷം കുടംപുളി നമ്മൾ വെള്ളത്തിൽ കഴുകിയ ആദ്യത്തെ വെള്ളം കളയണം എന്നിട്ടാ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ടാ വെള്ളം ഈ വഴറ്റിയെടുത്ത പൊടികളിലേക്കും അതായത് ഉള്ളി സവോള ആ ഐറ്റംസൊക്കെ നമ്മൾ വഴറ്റി എണ്ണയിൽ വഴറ്റിയിരുന്നല്ലൊ അതിൻറ്റുള്ളിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇവ പുളിവെള്ളം ഒഴിക്കുക അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒഴിച്ച് അതായത് കുറച്ചൊന്നു വെച്ചാൽ ആവശ്യത്തിനു വെള്ളം കൂടി ഒഴിച്ച് ആ പുളിയും കൂടതിനകത്തിട്ട് അതു തളപ്പിക്കുക ആവശ്യത്തിനു കറിവേപ്പിലയും ഇടാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ മുളക് ചാറിൻറ്റുള്ളിലേക്കു നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇടാവുന്നതാണ് ഏകദേശം പത്തു മിനിറ്റ് നേരം സ്ലോ ലോ സ്ലിമ്മിലല്ല ഒരു മീഡിയം സ്ലിം സിം ഗ്യാസിന്റെ അടുപ്പിൽ നമുക്ക് ഈ മീൻ വേവിക്കുമ്പോൾ നന്നായിട്ട് മീൻ വേകുന്നതാണ് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയം ഉപ്പ് കറിയിൽ ഇടാവുന്നതാണ് ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പൂണും കൊണ്ടിളക്കരുത് അത് ചട്ടി നമ്മൾ ഇടയ്ക്ക് പിടിച്ച് ഇളക്കണം ചട്ടി രണ്ടു കൈയ്യിലും കൂടി കൂട്ടിപ്പിടിച്ച് ഇളക്കുകയാണ് ചെയ്യേണ്ടത് ലാസ്റ്റ് അതു വെന്തുകഴിഞ്ഞു എന്നു മനസ്സിലാകുമ്പോൾ നമ്മൾ ഈ ചട്ടിയിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കാവുന്നതാണ് സ്വാദിഷ്ടമായ ക മീൻ റെഡിയായിരിക്കും